ഹലോ അതെ ഓക്കെ എന്നാണ് വേണ്ടത് ഓക്കെ എപ്പോഴത്തേക്കൊക്കെ ആണ് രാവിലത്തേക്കും വൈകിയിട്ടത്തേക്കും ആണോ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടത് ആ ഓക്കെ ഇനി ഞാൻ അതിൻ്റെ റേറ്റ് ഒന്ന് പറയട്ടെ ചായയ്ക്ക് പത്ത് രൂപ ആണ് കട്ട്ലറ്റിന് പതിനഞ്ച് രൂപ പഫ്സിന് പതിനഞ്ച് രൂപ ആണ് ബജിക്കും വടയ്ക്കൊക്കെ എട്ട് രൂപ ആണ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് വേണ്ടത് ഓക്കെ ഞങ്ങൾ കൊണ്ടു വരണോ നിങ്ങൾ വന്ന് വാങ്ങിച്ചോളുമോ ഓക്കെ എത്ര മണിക്കൊക്കെയാണ് വേണ്ടതെന്ന് പറയാമോ ഓക്കെ ഓ നിങ്ങൾക്ക് ഇതൊക്കെ ആണല്ലേ വേണ്ടത് ഓ വേറെ വല്ല ആവശ്യം ഉണ്ടോ ആ ചായ അല്ലാതെ ജ്യൂസോ അങ്ങനെ വല്ലതും ഓ പ്രൊവൈഡ് ചെയ്യും ഓക്കെ ഇത്രയാണ് ഉള്ളത് ഓ ശരി ശരി